എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് ഇപ്പോൾ മൊബൈൽ ഫോണെന്ന് പറഞ്ഞ ഒരു കാലഘത്തിലാണ് നമ്മള് വളരുന്നത് കാരണം എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ കോൾ വിളിക്കാൻ മാത്രമല്ല നമ്മള് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു ചെറിയ ഒരു കട്ടപ്പെട്ടി ഫോണാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ടച്ച് ഫോണും കാര്യങ്ങളൊക്കെ ആണ് പല വിധത്തിലുള്ള ടച്ച് ഫോണുകള് ഐഫോണുണ്ട് അങ്ങനെ പല രീതിലായി വൺ പ്ലസ് ഓരോ കമ്പനിക്കാര് ഓരോന്നിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാര് ഇതിനനുസരിച്ചിങ്ങനെ ഓരോന്നും അപ്ഡേറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐഫോൺ വേ ഫിഫ്റ്റീൻ പ്രൊ ഇറങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റീൻ സീരിസ് ഇറങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റീൻ സീരീസാണ് ആൾക്കാര് കൂടുതലായിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ അതിന് ഒന്നൊന്നര ലക്ഷം രൂപേന്റെയൊക്കെ അടുത്ത് വിലയുണ്ടെങ്കിലും അതൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമേ അല്ല അവർക്ക് ആ ഇറങ്ങിയ ഫോൺ ബാക്കി ആര് സ്വന്തമാക്കുന്നതിനെക്കാട്ടിലും ഒന്നാമത് ഇവർക്ക് സ്വന്തമാക്കണമെന്നുള്ള ഒരാഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് മെയ്നായിട്ട് ഉള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അപ്പോൾ ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ആളാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയ്നായിട്ട് ഈ ഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഫോണിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കില് നമ്മള് പൊതുവെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുക്കണം പക്ഷെ ഇതൊന്നും അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് ഫോണിലൂടെ തന്നെ ഫോട്ടോ എടുക്കാം ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും തപ്പാം ഇന്റർനെറ്റ് എല്ലാം എ ടു ഇസഡ് സാധനങ്ങള് നമുക്ക് ഫോണിലൂടെ കിട്ടും അതാണ് ഫോണിൻ്റെ ഗുണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല്